കൃഷ്ണരാജ് ആണ് ആ ആ ആ ഇത് ആര് സംസാരിക്കുന്നത് അല്ല അല്ല ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് വർക്ക് ഉണ്ട് അപ്പോൾ പേര് പറഞ്ഞാൽ മനസ്സിലാവും ഏത് വർക്കാണെന്ന് അറിയാൻ വേണ്ടി അത് അതെയോ ഓക്കെ ഓക്കെ ഓക്കെ പറഞ്ഞോ സാർ അതെ അല്ലേ ഓ അതെ അല്ലേ അപ്പോൾ ഇന്ന് തീർക്കണ്ടത് ആയിരിക്കും അല്ലേ അത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു നമ്മുടെ വീട് അത് രണ്ട് അഞ്ഞൂറ് ആ അതെ അതെ അല്ലേ ആ അത് നമുക്ക് സാർ അത് പുട്ടിയാണ് പുട്ടീൻ്റെ വർക്ക് ആ പുട്ടീൻ്റെ വർക്ക് കുറച്ച് ബാക്കി ഉണ്ട് പുട്ടിയുടെ വർക്ക് ആണ് കുറച്ച് നമുക്ക് ലാഗ് വരുകയുള്ളൂ സാർ അത് കഴിഞ്ഞാൽ പിന്നെ പെയിൻ്റ് വർക്ക് നമുക്ക് ഒരു ഒരു പത്ത് പേര് വന്നിട്ട് ഫുൾ ഡേ പണി എടുത്താൽ രണ്ട് ദിവസം കൊണ്ട് പരിപാടി തീരും അതെ അല്ലേ അത് അപ്പോൾ തീർക്കാം സാർ നമുക്ക് അപ്പോൾ സാറിന് എപ്പോഴാണ് ലീവ് കഴിയുന്നത് അപ്പോൾ ഫെബ്രുവരി എട്ടിന് തീർത്താൽ മതിയാവൂലേ അതെ അപ്പോൾ അപ്പോൾ എട്ടിന് തീർത്താൽ നമുക്ക് ബാക്കി വർക്കും കൂടി ചെയ്തിട്ട് ഒമ്പതിന് പത്തിന് കൂടി കൂടാലോ ആ ഇല്ല അങ്ങനെ ആണല്ലേ അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ അപ്പോൾ ഇന്നും നാളെയും കൂടി ഒരു രണ്ട് പേരെ കൂടി എക്സ്ട്രാ പണിക്ക് നിർത്താം അവിടെ ഏത് പുട്ടി ഇടാൻ വേണ്ടിയിട്ട് ഓക്കെ സാർ അപ്പോൾ ഞങ്ങൾ ഫെബ്രുവരി എട്ടിന് മുമ്പ് നിങ്ങൾക്ക് തീർത്തിട്ട് താക്കോൽ കൈയ്യിൽ തരാം എന്തേ അത് മതി ആവുമല്ലോ അതെ അല്ലേ ഓക്കെ അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് പിന്നെ എൻ്റെ പണിക്കാരോട് കൂടി ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കാം ഓക്കെ ഓക്കെ ഓക്കെ ഇപ്പോൾ വിളിക്കാം ഇപ്പോൾ വിളിക്കാം